മൃഗങ്ങളെ രോഗങ്ങൾ ബാധിക്കുന്നതിൽ മൃഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പശുക്കളാണ് പശുക്കളെ മാടുകളെയും നമ്മൾ വളർത്തുമ്പോൾ നമ്മളൊരു മരുന്ന് മേടിച്ച് അതിന് കൊടുക്കുന്നതിലും നല്ലത് നമ്മൾ കൃത്യമായി അതിൻറെ കൂടുകൾ കൃത്യമായി കഴുകുകയും വൃത്തിയാക്കുകയും അതിൻറെ കുളമ്പിൻറെ ഉള്ളിലിരിക്കുന്ന മറ്റ് അഴുക്കുകളെ നീക്കം ചെയുകയും നന്നായി കുളിപ്പിക്കയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ അതിനസു ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്നും നല്ലൊരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം പിന്നെ അത് ഈ കുളമ്പുരോഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ പശുക്കളും മാടുകളും നമ്മൾ കൂടുകൾ കൃത്യമായി ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് നമ്മളെ പോലെ ഉള്ളവർ കൃത്യമായും നമുക്ക് ചെയ്തുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഈ രോഗങ്ങളിൽ നിന്നും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും കൂടാതെ നമ്മൾ മൃഗ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കൊണ്ടും കാലാകാലങ്ങളിൽ അതിന് കൊടുക്കാനുള്ള പ്രധിരോധ കുത്തി വയ്പുകളും എടുത്തുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മൃഗങ്ങളെ നല്ല രീതിയിൽ വളർത്തുവാനും അതിന് വേണ്ട ആരോഗ്യപരമായി നമുക്ക് സംരക്ഷിക്കുവാക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് അതിനെ പരിപാലിക്കുക അത് കൃത്യനിഷ്ഠതയോടെ പരിപാലിക്കുക എന്നുള്ളതാണ് കൃത്യമായി അതിനെ കുളിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങളും ചെയ്താൽ നല്ലൊരു രീതിയിൽ ഇതുങ്ങളെ ഈ കന്നുകാലികളെ നമുക്ക് വളർത്തുവാൻ നമുക്ക് സാധിക്കും